ഉയർന്ന പ്രദേശങ്ങളിലോ ചെരിഞ്ഞ ഭൂപ്രദേശങ്ങളിലോ കാപ്പിയും തേയിലയും ഒക്കെ കൃഷി ചെയ്യുന്നതിനുള്ള ഒരുപാട് വെല്ലുവിളികള് നേരിടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കില് അത് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വരുന്നതിനൊക്കെ അത് കാരണമാകുന്നു വേണ്ടത്ര ജലം ലഭിക്കാതെ വരുന്നതിലത് കൃഷി നാശത്തിലേക്ക് പതിക്കാനായിട്ട് സാധ്യത അതുപോലെ തന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് മണൊലിപ്പ് സംഭവിക്കാനും ആ കൃഷിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അതിനാലാണ് ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യാതിരി കാപ്പിയും തേയിലയുമൊക്കെ കൃഷി ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളെന്ന് പറയുന്നത് കാപ്പിക്കും അതുപോലെ തന്നെ തേയിലക്കൊക്കെ ഒരുപാട് വേരുള്ളതിനാൽ തന്നെ അത് അത് മണ്ണിൻ്റ അടിയിലേക്ക് ആഴത്തില് ആഴ്ന്നിറങ്ങേണ്ടത് തന്നെയാണ് അതിനാൽ തന്നെ ഏറ്റവും കൂടുതല് ഉയർന്ന പ്രദേശങ്ങളില് അത് കൃഷി ചെയ്യുന്നതോടെ അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഒരു വലിയ ഭൂമി ദുരന്തം വന്നിട്ടുണ്ടെങ്കില് അത് മൊത്തത്തിൽ ഒരു നാശനഷ്ടത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് അൽപ്പം മണ്ണിടിഞ്ഞാൽ പോലും ആ ഒരു പ്രദേശത്തെ അത് മുഴുവനായിട്ട് സ്വാധീനിക്കാനായിട്ട് ചാൻസുണ്ട് അത് മുഴുവനായിട്ട് നശിച്ച് പോകും ചാൻസുണ്ട് അതുപോലെ തന്നെ ചെരിഞ്ഞ ഭൂപ്രദേശങ്ങളിലായിരുന്നാൽ പോലും അവിടെ വെള്ളമൊന്നും സം അവിടെ വെള്ളം ഒഴിക്കാനാണേൽ പോലും ആ വെള്ളം മുഴുവന് ആ വെള്ളം മുഴുവന് ഒഴിച്ച് താ ഒഴുകി താഴേക്ക് പോകാനായിട്ടൊക്കെ ചാൻസുണ്ട് ഒന്നും ആ ഇതില് സംഭരിച്ച് നിൽക്കത്തില്ല ആ ഒരു തേയില ആ ഒരു കൃഷി തേയിലയിലോ കാപ്പിയിലോ ഒന്നും ആ ഒരു വെള്ളം വലിക്കത്തില്ല ആ വെള്ളം മുഴുവൻ താഴേക്കിറങ്ങിപ്പോയി അത് മൊ താ ഒലിച്ച് പോകാനാണ് ചാൻസ് അത് കൂ ഒലിച്ച് പോകാൻ അതുപോലെ തന്നെ ആ ഒ ചെരിഞ്ഞ പ്രദേശങ്ങളിലായിരുന്നാൽ പോലും ആ ഒരു വെള്ളമൊന്നും ആ ഒരു കൃഷി ഭൂ കൃഷിയെ വലിച്ചെടുക്കാന് കൃഷിക്ക് വലിച്ചെടുക്കാൻ സാധിക്കില്ല അത് മുഴുവൻ ഉപയോഗ ശൂന്യമായിട്ട് പുറത്തേക്ക് അത് താഴേക്ക് പോകപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതും ആ പ്രദേശങ്ങളില് കൂടുതലായിട്ട് മണ്ണൊലിപ്പുണ്ടാകാനായിട്ടും ചാൻസുണ്ട് ഒരു പ്രകൃതിക്ഷോഭം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണും പൂർണ്ണമായിട്ടും ഒലിച്ചു പോകൻ ചാ സാധ്യതയുണ്ട് അതുപോലന്നെ ഉയർന്ന പ്രദേശങ്ങളില് ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങളേക്കാൾ കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളെ കീടാണുക്കളൊക്കെ കൂടുതലായിട്ട് കാണപ്പെട് കാണപ്പെടാനായിട്ട് ചാൻസുണ്ട് ചില ഇനം ആ കാപ്പിക്കും തേയിലയ്ക്കും വെല്ലുവിളികളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളും മറ്റുവൊക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് തൊഴിലാളികളെ ലഭിക്കാനായിരുന്നാൽ പോലും ഇത്രയും ഉയരങ്ങളില് ആകുമ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചെരിവ് പ്രദേശങ്ങളിലായിരുന്നാൽ പോലും കൃഷിപ്പണിയില് ഏർപ്പെടുമ്പോഴായിരുന്നാൽ പോലും അത് വളരെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉളവാകു ഉളവാക്കുന്നതാണ് അപ്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉളവാകുന്നുണ്ട് അതുപോലെ തന്നെ കൃഷിപ്പണിയിലേർപ്പെടുമ്പോൾ ചെരിവ് പ്രദേശമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ അപകട സാധ്യത കൂടുതലായിട്ട് സാ പറ്റാനും ചാൻസുണ്ട് തൊഴിലാളികൾക്കായിരുന്നാൽ പോലും അതുകൊണ്ട് തൊഴിലാളികളേ ആയിരുന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ ഒക്കെ ലഭിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉയർന്ന പ്രദേശികളിലായിരുന്നാൽ പോലും ഉയർന്ന വാഹനങ്ങളെത്തിപ്പെടാനും അതുപോലെ തന്നെ കൃ വാഹനങ്ങള് മുകളിലേക്ക് എത്തി കൃ ആ ഒരു കൃ വിളകള് കൊണ്ടുപോകാനുവൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശങ്ങളില് കൃഷിഭൂമി വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നത് തന്നെയാണ് പിന്നെ നിലമൊരുക്കുകയാണെങ്കിൽ തന്നെ അത് തട്ട് തട്ടായിട്ടാണ് കാപ്പിക്കും തേയിലയ്ക്കുമൊക്കെ വേണ്ടി നിലമൊരുക്കുന്നത് തട്ട് തട്ടായിട്ട് നിലം ഒരുക്കി കൃഷി ചെയ്യലാണ് ഇതിന് സാധാരണയായി നടത്തുന്നത് ഉൽപ്പന്നങ്ങള് കടത്താനായിട്ട് സാധാരണയായിട്ട് പെട്ടി ആപ്പകളും അതുപോലെ തന്നെ ആ പെട്ടിയാപ്പകളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വലിയ ടിപ്പ് ലോറി പോലത്തെ ചെറിയ ലോറി പോലത്തെ ചെറിയ ലോറികളും അതുപോലെ തന്നെ ചെറിയ ടിപ്പറുകളും ഒക്കെയാണ് ഈ തേയിലകളൊക്കെ കൂടുതലായിട്ട് കടത്തുന്നത് കട തേയിലകളൊക്കെ കൂടുതലായിട്ടും കടത്താനായിട്ട് ഉപയോഗപ്രദമാവുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് വലിയ വാഹനങ്ങളാണ് കൂടുതലായിട്ട് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത് ഒരു ചെറിയ ഒരു അൽപം പ്രദേശത്ത് മാത്രമല്ല സോ സാധാരണായിട്ട് കൃഷി ചെയ്യാറ് ഒരു പ്രദേശം മുഴുവനായിട്ട് കൃഷി അതുകൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉള്ളതിനാൽ തന്നെ അത് പലപ്പോഴും അത്യാവശ്യം വലിയ വാഹനങ്ങളിൽ തന്നെയാണ് അതിന് കൊണ്ടു പോകാറുള്ളത്